ഞാൻ ഓൺലൈനിൽനിന്ന് ഒരു ടി വി ഓഡർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പന്ത്രണ്ട് ഇഞ്ചിൻ്റെ പക്ഷെ എനിക്ക് ഇവിടെ വരുമ്പോൾ ഒരു പത്ത് ഇഞ്ചിൻ്റെയാണ് കിട്ടിയത് അത് ഓൺലൈനിൽ ഓൺലൈൻകാർ പാക്ക് ചെയ്തതോടു കൂടി അടക്കം കവറിങ്ങ് നേരെ ഉണ്ടായിരുന്നില്ല ഇവിടെയെത്തി പൊട്ടിച്ചു നോക്കുമ്പോൾ അതിൽ ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ടി വിയിൽ പിന്നെയും ഒരാഴ്ച്ച ഞാൻ ടി വി ഓടി എന്താ ഇട്ടു കണ്ടിരിന്നു അപ്പോഴേയ്ക്ക് ടി വിയിൽ ചെറിയ ചെറിയ ക്രാച്ച് വരകളൊക്കെ വരാൻ തുടങ്ങി ഓഫീസിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വന്ന് നേരെയാക്കിത്തരാം പറഞ്ഞ് പക്ഷെ അവർ വരാൻ ലെയ്റ്റായി അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി